ആരാണ് സംസാരിക്കുന്നത് ആ അതെ ഇത് അമ്പലപ്പുഴ ഫിഷ് മാർക്കറ്റ് ആണ് എല്ലാ മീനും ഉണ്ടല്ലോ നമുക്ക് ആറ്റു മീനുണ്ട് കടൽ മീനുണ്ട് കരിമീനുണ്ട് വില കിലോയ്ക്ക് ആയിരത്തിന് മേലെ പോവും

ആ ഇപ്പം ഓഫ് സീസൺ അല്ലേ ഇപ്പം ആ എപ്പോഴും കിട്ടുന്ന സമയമല്ല അത് നമ്മൾക്ക് ഈ ഒരു വിലയാണല്ലോ എന്ന് ഫ്രഷ് ആയത് കൊണ്ടാണ് നമുക്ക് നല്ല സാധനം നമ്മൾ ആ ഇത് നമ്മൾ ഇത് വെട്ടി വൃത്തിയാക്കി ശരിയാക്കി കൊടുക്കും നല്ല സാധനാണ് ഫ്രഷ് സാധനമാണ് നിങ്ങക്ക് നിങ്ങൾ എവിടെ എവിടെയാണ് നിങ്ങൾ കുറഞ്ഞ ചാർജ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അവിടെ നിന്ന് എത്രയായിരുന്നു വില അത് ചുമ്മാ പറയുന്നത് അത്രയും വിലയ്ക്കൊന്നും കിട്ടത്തില്ല അത് നല്ല കരിമീൻ ആയിരിക്കത്തില്ല ഇത് എന്തായാലും ആ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല അത് നിങ്ങൾ വെറുതെ പറയുന്നതാണ് നിങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടാൻ വേണ്ടി നിങ്ങൾ വെറുതെ പറയുന്നത് ആ വില

ഇരുന്നൂറ് രൂപ കുറയ്ക്കാം അതിൽ കൂടുതല് കുറയ്ക്കാൻ പറ്റത്തില്ല ആയിരത്തിന് മേലെ പോവു എന്നാണ് പറഞ്ഞത് ഒരു ആയിരം എങ്കിലും കിലോയ്ക്ക് നമുക്ക് ആവും നല്ല സാധനം അത് അത് നിങ്ങൾ വന്നു വാങ്ങുകയല്ലേ വന്നു വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അത് നിങ്ങൾ വന്നു കാണുക ഫ്രഷ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങിച്ചാൽ മതി തീരുമാനിച്ചാൽ മതി ആ ഇല്ല നിങ്ങൾ വന്നു കണ്ടിട്ട് വാങ്ങിയാൽ മതി

ശരി വന്നു കണ്ടിട്ട് വാങ്ങിയാൽ മതി അപ്പം നമുക്ക് വില അമ്പലപ്പുഴ ഓവർ ബ്രിഡ്ജിന് മുന്നെ ആയിട്ട്